ഇന്നത്തെ നമ്മുടെ ചുറ്റുപാടിൽ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നാണ് ഈ കർഷക ആത്മഹത്യ അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഗവൺമെൻറ്റും അല്ലേ ഇതുപോലുള്ള ഭരണസംവിധാനങ്ങളും ഒക്കെയാണ് നമ്മുടെ ഇവിടെ സാധാരണക്കാരായിട്ടുള്ള കർഷകരാണ് ശരിക്കും നമ്മുടെ ഇന്ത്യ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് തന്നെ നമ്മൾ പറയുമ്പോൾ ഏറ്റവുമധികം നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയിലെ സ്വാധീനം ചെലുത്തുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ കൃഷിയാണ് അതുകൊണ്ട് അപ്പം അതുകൊണ്ടു തന്നെ നമ്മുടെ സർക്കാരാണെങ്കിലും നമ്മുടെ ഏതു ഭരണസംവിധാനങ്ങളാണെങ്കിലും കാർഷികവൃത്തിയെ അല്ലെങ്കിൽ കൃഷിയെ മുൻ കൃഷിക്ക് മുൻതൂക്കം കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവർ ഓർഗൻ സംഘടിപ്പിച്ചു മുൻപോട്ട് വരികയാണ് വേണ്ടത് എന്നാൽ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും കേരളത്തിലെ സ്ഥിതി എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും അതുപോലെയുള്ള സാധനങ്ങൾ എല്ലാം വരുന്നത് അപ്പം എല്ലാം പുറത്തുനിന്നുള്ള സംസ്ഥാനങ്ങളിൽ നിന്നു വന്നിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് കേരളത്തിലെ ഇന്നത്തെ ജീവിതം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം കേരളത്തിൽ ഈ ജനങ്ങൾക്ക് എല്ലാം കഴിക്കാനായിട്ടുള്ളതും ഉൽപാദനം നമ്മുടെ കേരളത്തിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെ മറ്റ് സാധനങ്ങൾ എല്ലാവിധ ഭക്ഷ്യ സാധനങ്ങളും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതലായിട്ട് ഇറക്കുമതി ചെയ്യുന്നതു കൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെയുള്ള കർഷകർക്ക് വേണ്ടത്ര പരിഗണന നമ്മുടെ സംസ്ഥാന സഹ കേന്ദ്ര ഗവൺമെന്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാതിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഇത്തരത്തിലുള്ള കർഷക ആത്മഹത്യക്ക് അതു മാത്രവുമല്ല കർഷകർ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വർഷത്തിലും കൃത്യമായിട്ട് തന്നെ പല രീതിയിലുള്ള കൃഷി ഇറക്കുന്നത് അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഏതെങ്കിലും പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ അവർക്ക് കൃഷി കൃത്യമായിട്ട് അവരുടെ കൃഷി സക്സസ് ആവാതെ വരുകയും അത് പ്രശ്നത്തിലേക്ക് പോവുകയും ചെയ്യുമ്പോഴത്തേക്കാണ് അവരുടെ പൈസയും നഷ്ടമായി അവർക്ക് അതിൻ്റെ ഫലവും ഇല്ലാതെ വരുമ്പോഴത്തേക്കും ആണ് ഏറ്റവും അധികം പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നത് കർഷകരായിട്ടുള്ള പ്രത്യേകിച്ചും സാധാരണ ജനങ്ങൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള കർഷക ആത്മഹത്യ പോലെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് സർക്കാർ വേണ്ട മുൻകരുതലുകൾ കൃത്യമായിട്ട് എടുക്കുക എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യാൻ പറ്റുന്നത് കൃത്യമായി തന്നെ കാരണം ഇന്നത്തെ കാലത്ത് ഏറ്റവും അധികം കുറഞ്ഞു കൊണ്ടിരിക്കുകയാണ് കൃഷിയിലേക്ക് വരുന്ന പുതിയ തലമുറ ഒരു വളരെയധികം കുറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടു തന്നെ പുതിയ തലമുറയെ കൃഷി പോലെയുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേയുള്ളൂ നമുക്ക് മുൻപൊട്ടുള്ള ജീവിതത്തിലും അല്ലെങ്കിൽ ഇനിയുള്ള വരും തലമുറകൾക്കും കൃഷി എന്നുള്ളതിലേക്ക് വരാൻ ആയിട്ട് ഉള്ള ഒരു പ്രചോദനമാവത്തുള്ളൂ അതുമാത്രവുമല്ല കൃഷി പൂർണ്ണമായിട്ടും അതിൽ നിന്ന് വരുമാനമാർഗങ്ങളില്ലാതെ കടക്കെണിയിൽ ആകുന്ന കർഷകരെ കണ്ടു വളരുന്ന പുതിയ തലമുറയും ഒരു കാരണവശാലും കൃഷിയിലേക്ക് വരും വരില്ല എന്നുള്ളത് വളരെയധികം വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഗവൺമെന്റ് അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് സ്ഥാപനങ്ങളും കൃഷിയെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളുമായി മുൻപോട്ടു വരണം എന്നുള്ള ഒരു കാര്യം എല്ലാ കാർഷിക സംഘടനകളും കൃത്യമായിട്ട് തന്നെ എപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പക്ഷേ അത്തരത്തിലുള്ള ഒരു സമീപനങ്ങളും നമ്മുടെ ഗവൺമെന്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാറില്ല കൃത്യമായി തന്നെ ഒരു ഒരു കർഷകർക്ക് വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവർക്കൊരു നഷ്ടം വരുമ്പോഴത്തേക്കും അതിനെ ആ നഷ്ടം പരിഹരിക്കാനും ആ അതിൽ അവിടെ അവർക്ക് പ്രശ്നങ്ങളില്ലാതെ കർഷകരുടെ നിലനിർത്താനും വേണ്ട എല്ലാ കാര്യങ്ങളും ഗവൺമെന്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായെങ്കിലും മാത്രമേയുള്ളൂ കൃത്യമായി ഇവിടെ കർഷകർ ഉണ്ടാവാത്തുള്ളൂ അത് അതിലൂടെ മാത്രമേ വരും തലമുറകൾക്കും ഇവിടെ കൃ നല്ല രീതിയിലും അല്ലെങ്കിൽ സമ്പുഷ്ടമായ രീതിയിലും ജീവിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള കർഷക ആത്മഹത്യകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ട എല്ലാ മുൻകരുതലകളും സർക്കാരും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഇവിടെ ജീവിക്കുന്ന വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളും ചെയ്യണം എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള കർഷക ആത്മഹത്യകളും അല്ലെങ്കിൽ കർഷ കൃഷിയിലേക്ക് വരുന്നതിലുള്ള വിരക്തിയും ഒക്കെ ഇല്ലാതാക്കാൻ പറ്റുകയുള്ളൂ എങ്കിൽ മാത്രമേയുള്ളൂ നാളെ വരും തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാനും ഇതുപോലെയുള്ള കാർഷിക വൃത്തിയിലേക്ക് വരാനുമുള്ള പ്രചോദനമാകുകയുള്ളൂ